ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഥകളി കൂടിയാട്ടം പൊട്ടന് തെയ്യം പിന്നെ അതുപോലെ തന്നെ പരുന്താട്ടം അത് അതൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് ഉള്ളത് എന്ന് പറയാനായിട്ട് പിന്നെ കരകൗശല വസ്തുക്കൾ വെച്ചിട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചട്ടി കലം അങ്ങനെത്തെയൊക്കെ സാധനങ്ങളാണ് ഇനി ഇവരുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മുടിയാട്ടമൊക്കെ ആണെങ്കിൽ ആദ്യം തൊട്ട് പഴമക്കാർ ഉണ്ടാക്കി വളർച്ച് വരുന്ന സാധനമാണ് മുടിയാട്ടം അതുപോലത്തെതൊക്കെ ഇപ്പോഴും നിലനിന്ന് പോവുന്നുണ്ട് പിന്നെ